ഹലോ എടാ ഇത് റിക്കിയാണ് ഞാൻ ഞാൻ വിളിച്ചത് ഈയൊരു ഈ വീക്കെൻഡിൽ നമ്മളൊരു ക്രിക്കറ്റ് കളി കാണാൻ പോകുന്നുണ്ട് അപ്പം നമ്മള് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോള് എപ്പം ഇറങ്ങണം നമ്മള് ഫ്രൈഡേ പോകാമെന്നായിരുന്നു വീക്കെൻ്റില് സാറ്റർഡേ സൺഡേ ആണ് കളി ഓക്കെ അപ്പം തേസ്ഡെ എപ്പോള് ഇറങ്ങണം ഓക്കെ ഓക്കെ പക്ഷേ നമ്മള് തേഴ്സ്ഡേ ഒരു ഏഴ് മണിയാകുമ്പോള് ഇറങ്ങാം വൈകിട്ട് അപ്പോള് ഞങ്ങള് ഫ്രൈഡേ അവിടെയെത്തും രാവിലെ ആ അപ്പം ഒമ്പതരയ്ക്ക് ഇല്ലില്ല നമ്മൾ രണ്ട് പേരെയുള്ളൂ ആ നമുക്ക് ട്രെയിനിന് പോകാം പിന്നെ നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് മാച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ കുറച്ച് കറങ്ങാനൊക്കെ പോകാം അപ്പോള് ഇനി നമുക്ക് ഉടനെ തിരിച്ചുവരേണ്ട ആവശ്യമില്ലല്ലോ അപ്പോള് നമുക്ക് ഇല്ല ഞാൻ ഉദ്ദേശിക്കുന്നതെന്നുവെച്ചാല് ഇപ്പം നമുക്ക് സാറ്റർഡേയിലെ മാച്ച് കഴിഞ്ഞിട്ട് വൈകീട്ട് കുറച്ച് കറങ്ങിയിട്ട് പിന്നെ സൺഡേ നമുക്ക് കുറച്ച് കുറച്ച് അടുത്തുള്ള സ്ഥലങ്ങളിലെല്ലാം പോയി വിസിറ്റ് ചെയ്തുകഴിഞ്ഞിട്ട് അതുകഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കില് ട്രെയിൻ കയറാം അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കുറച്ചുകൂടെ കറങ്ങിയിട്ട് മണ്ടേ ഉച്ചയ്ക്കായിട്ട് നമുക്ക് ട്രെയിൻ കയറിയാല് മതി എങ്ങനെയാണെന്ന് വെച്ചാല് ആ വീക്കെൻഡാകുമ്പോള് തിരക്ക് കാണും അപ്പം നമുക്ക് എന്നാല് നമുക്ക് വേണമെങ്കില് മണ്ടേ ഉച്ചയ്ക്ക് ട്രെയിൻ കയറാം

ആ ആ നമുക്ക് വേണമെങ്കില് ഹോട്ടൽ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെ നമുക്ക് ഓടിക്കാനായിട്ട് വണ്ടി റെൻറ്റിനായിട്ട് അവിടെ ചെന്നിട്ട് വേണം നമുക്ക് ഡിസൈഡ് ചെയ്യാൻ അങ്ങനത്തെ പ്രശ്നമുണ്ട് ബാക്കി എത്ര രൂപ എത്ര രൂപയാകുമെന്നോ ഒരു രണ്ടായിരം മൂവായിരം ആകുമായിരിക്കും റെൻ്റ് റെൻ്റ് ആ റെൻ്റ് ഞാൻ കുറച്ചുകൂടെ എക്സ്ട്രാ ആകും പക്ഷേ അല്ലാത്ത എക്സ്പെൻസെല്ലാം നമ്മൾ ഞാന് കൂട്ടിയിട്ടുണ്ട് തിരിച്ച് നമുക്ക് അപ്പം നമുക്ക് തിരിച്ചെത്തേണ്ട സമയം നമുക്ക് കൺഫേം ചെയ്യാം വേണമെങ്കില് ഒരു മണ്ടേ മണ്ടേ നമ്മൾ ഉച്ചയ്ക്കൊരു മണ്ടേ വൈകിട്ടല്ലെങ്കില് റ്റൂസ്ഡേ രാവിലെ എത്തുന്ന രീതിക്ക് നമുക്ക് ഇറങ്ങാം